രണ്ടായിരത്തി എട്ടിൽ ഒരു റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നു ഐഡിയ സ്റ്റാർ സിംഗർ വളരെ നല്ലൊരു റിയാലിറ്റി ഷോ ആയിരുന്നു അതിൽ ഒത്തിരി ഗായകർ ഉണ്ടായിരുന്നതിൽ ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരാളാണ് വിവേകാനന്ദൻ വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു സിംഗർ ആയിരുന്നു ഓരോ പാട്ടും പാടുന്ന ഓരോ പാട്ടും സോൾ ഉൾക്കൊണ്ട് വിവേകാനന്ദൻ പാടിയിട്ടുണ്ട് ഇന്ന് ഞാൻ ഓർക്കുന്നു വിവേകിൻ്റെ ആ പെർഫോമൻസ് എന്തിന് വേറൊരു സൂര്യോദയം എന്നുള്ള ആ ഒരു പാട്ടാണ് ഞാനിപ്പോഴും ഓർക്കുന്നത് ശബ്ദം ഭാവം ഇതൊക്കെ വിവേകിൻ്റെ പാട്ടിനൊരു പ്രത്യേക ഭംഗിയായിരുന്നു പാടിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം അതായിരുന്നു പിന്നെ ഒറ്റക്കമ്പി വീണാ നാദം ആ സോങ്ങ് ഒക്കെ ഞാനോർക്കും ഈ മെലഡി ഗാനങ്ങളോടുള്ള എൻ്റെ ഇഷ്ടം കൂടിയത് വിവേകാനന്ദൻ്റെ ഈ പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട് തന്നെ ആയിരിക്കും